ഹാ ചേട്ടാ നമസ്ക്കാരം ആ ചേട്ടാ നമ്മുക്കേ ഗുരുവായൂരിലോട്ടൊന്ന് പോകണം അപ്പം ഓട്ടോ എടുക്കുകാന്നുണ്ടെങ്കില് എങ്ങനെയാണ് നമുക്കെത്ര ദൂരമുണ്ടാവും എത്ര സമയത്തിനുള്ളിൽ അവിടെ എത്തുന്നതെന്ന് ഒന്ന് പറയാൻ പറ്റുമൊ അ രാവിലെ പോവാനാണ് ഉച്ചയാവുമ്പോഴേക്കും അവിടെ എത്തുന്ന രീതിയില് അതേലെ അപ്പോൾ ഏത് പോവാ ഏത് റൂട്ടായിരിക്കും നമ്മള് പോവുക ഏത് റൂട്ടിൽ കൂടെയായിരിക്കും നമ്മള് പോവുക രണ്ട് റൂട്ടിൽ കൂടെ പോകുമ്പോഴും സൈം സമയം തന്നെയാണോ എടുക്കുക

ആണോ നമുക്ക് ഓട്ടോയില് പോയിട്ട് അതില് തന്നെ തിരിച്ച് വരാനാണെ അപ്പം അങ്ങനെ നിങ്ങള് വെയിറ്റ് ചെയ്യില്ലേ അവിടെ ആ അപ്പം എങ്ങനെയാണ് അവിടുത്തെ ഇത് കഴിഞ്ഞിട്ട് വേറെ എവിടേലും സ്ഥലമുണ്ടോ കാണാൻ പോവാൻ അല്ല ഉച്ചയ്ക്ക് ഉച്ചയ്ക്കെത്തിയാല് നമ്മളൊന്ന് ഫ്രെഷായിട്ടേ കേറുന്നുള്ളു അപ്പം ഒരു വൈകുന്നേരത്ത് കേറാന്ന് പറഞ്ഞിട്ടാണ് ഒരു മൂന്ന് മണിക്ക് പൂജ മൂന്ന് മണിക്ക് നട തുറക്കാറുണ്ടല്ലോ അതിന് കേറാനാണ് അമ്മിയൂര് നട തുറക്കുന്നുണ്ടാവില്ലേ വൈകുന്നേരത്ത് ആ അതേലെ ആ അപ്പോൾ അങ്ങോട്ടൊന്നും പോവണ്ടേ അന്നേരം

അതെ അപ്പോൾ നമ്മള് തിരിച്ച് എല്ലായിടവും പോയി തിരിച്ചെത്തുമ്പോൾ സമയമെടുക്കില്ലേ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യില്ലെ

അല്ലാ നമുക്ക് ഈ വണ്ടിയിൽ തന്നെ പോകാനാണ് ആ അതേലെ ആ ഹാ എങ്ങനെയാണ് ചാർജ് എങ്ങനെയാണ് വരുന്നത് എന്നാലും നിങ്ങൾ ഏകദേശം എത്ര ചാർജ് വച്ച് കൊടുക്കാന്ന് പറയ്

അതേലെ ആ ആ ഓക്കേ ഓക്കേ അപ്പം എപ്പോഴാണ് നിങ്ങള് ഫ്രീയാവുക നമ്മളൊരൂ ദിവസം ഫിക്സ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വീക്കിലൊരു ദിവസം എന്നേ പറഞ്ഞിട്ടൊള്ളൂ അപ്പോൾ നിങ്ങളുടെ കൂടെ സൗകര്യമനുസരിച്ച് ഒരു ദിവസം നോക്കാനാണ് ആ ഈ നമ്പറില് വിളിച്ചാൽ കിട്ടില്ലേ അപ്പോൾ ഞാൻ വിളിച്ചോളാം ആ ഓക്കെ ആ എന്താ നിങ്ങളുടെ പേര്

ശരി കെട്ടോ വിളിയ്ക്കാം